പാലക്കാട് ജില്ലയിൽ നമ്മൾ പല രീതിയിലുള്ള ഉത്സവങ്ങൾ ഇപ്പോൾ പല മതത്തിലുള്ള പല സംസ്കാരങ്ങളുടെ വൈവിധ്യമാർന്ന ഉത്സവങ്ങൾ നമ്മുടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ നോക്കുകാണെന്ന് പറയുമ്പോൾ ഫെയ്മസായിട്ടുള്ള കേരളത്തിലെ മൊത്തം അറിയപ്പെടുന്ന ഈ മറവ് അല്ലെങ്കിൽ വേല അതുപോലെ നമ്മുടെ ചെനികുത്തൂർ പൂരം കൊങ്ങമ്മട ചിറ്റൂർ കൊങ്ങമ്മട അല്ലെങ്കിൽ പിന്നെ കുതിരയോട്ടം കൊഴിഞ്ഞാപാറയിലെ കുതിരയോട്ടം പിന്നെ നമ്മുടെ ഈ തിരുവില്വാമല വേല മഴപ്പുള്ളിക്കാവ് വേല അങ്ങന ഒട്ടനവധി അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ പിന്നെ നോക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ തെരുവത്ത് പള്ളി നേർച്ച പള്ളി നേർച്ച പിന്നെ കുടുംബ പള്ളി നേർച്ച അങ്ങനെ പള്ളി നേർച്ചകൾ പിന്നെ നമ്മുടെ സാംസ്കാരികപരമായിട്ട് നോക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ദീപാവലിയുണ്ട് ഹോളിയുണ്ട് ഹൊ ഓണം പിന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ജൈനമായിട്ടുള്ള ഉൽസവം ജൈന മഹോത്സവം അങ്ങനെ പല രീതിയിലുള്ള ഉത്സവങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ കൊണ്ടാടുന്നുണ്ട് അവ എല്ലാം അതിൻറ്റേതായ പാരമ്പര്യത്തെയും വിശ്വാസങ്ങളെയും എല്ലാം മുറുകെ പിടിച്ച് കൊണ്ട് തന്നെ ഇപ്പോഴും പണ്ട് നടന്നത് എങ്ങനെയാണോ അതിൻ്റെ തനിമയും പൊലിമയും കാത്ത് സൂക്ഷിച്ച് നഷ്ടപ്പെടാതെ കൃത്യമായ രീതിയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇപ്പോഴും മുടക്കം വരുത്താതെ അതില് ഒട്ടും കുറവു വരുത്താതെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി ഓരോ കൊല്ലവും നമ്മുടെ നാട്ടിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്